കുടുംബത്തിലെ സ്ത്രീകൾ മത്സ്യ ബന്ധനത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടേങ്കില് പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അവര് അതായത് പിന്നെ മത്സ്യ ബന്ധനത്തിന് പോകുന്ന ആണുങ്ങള് പിന്നെ കുറെ മീന് കാര്യങ്ങള് അതായത് അവർക്ക് ഒരുപാട് മീനും കാര്യങ്ങളുമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടേൽ അത് എല്ലാ മീനും കൂടി ഒരുമിച്ച് ഒരു ഇതായിട്ട് ഇരിക്കും ഇപ്പോൾ നെത്തോലി മത്തി അയല അങ്ങനെ പല പല പല പല മീനുകൾ ഉണ്ടല്ലോ എല്ലാം കൂടെ മിക്സയിട്ട് ഒരുമിച്ചായിരിക്കും വരുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് അവരുടെ പണി എന്ന് വെച്ചിട്ടുണ്ടേൽ ഇത് വേർതിരിച്ച് കൊടുക്കല് പിന്നെ അതായത് ഇത് വെ അതായത് നമുക്ക് പല അതായത് ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ മീനായിട്ട് വേർതിരിച്ച് കൊടുക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ അത് ചിലപ്പോൾ അവര് തന്നെ ആയിരിക്കും അതായത് വീട്ടിൽ ഉള്ള സ്ത്രീകൾ തന്നെയായിരിക്കും വിൽക്കാൻ ഒക്കെ അതായത് കൊട്ടയിൽ ഒക്കെ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് ഈ മീൻ പി വല നെയ്യും വല നെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരായിരിക്കും ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് അവര് കടലിൽ പോകാത്ത കാരണം എന്താ എന്ന് വെച്ചിട്ടുണ്ടേങ്കില് ഇപ്പോൾ ആണുങ്ങളെ പോലെ ഒരു ശക്തിയും കാര്യങ്ങളും മെയിൻ ആയിട്ട് പെണ്ണുങ്ങൾക്ക് ഇല്ല അപ്പോൾ ഈ വലിയ വലിയ വലയായിരിക്കാം അപ്പോൾ ആ വല എടുത്ത് എറിയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവർക്ക് നടക്കില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേങ്കിൽ വലിയ എന്തെങ്കിലുമൊക്കെ അപകടം അങ്ങനെ എന്തെങ്കിലും അ വരുവാണെങ്കിൽ അത് തരണം ചെയ്യാനുള്ള മനോ ധൈര്യം അവർക്ക് ഉണ്ടാവില്ല പിന്നെ വീട്ടിലെ കുട്ടികളെയും മക്കളെയും ഒക്കെ നോക്കണം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ തന്നെ വേണം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവര് കടലിൽ പോകാത്തത്